ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്താൻ സർക്കാർ വളരെയേറെ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എങ്കിലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അത്ര പോരാ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൽകുന്ന അത്രയും നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ നൽകുവാൻ ഈ സർക്കാർ വിദ്യാഭ്യാസങ്ങൾക്ക് സാധിക്കുന്നില്ല സർക്കാര് കുറച്ചും കൂടി നല്ല രീതിയിൽ വിദ്യാർത്ഥികൾക്ക് നല്ല സേവനങ്ങൾ ചെയ്തുകൊടുക്കണം കൂടുതൽ യൂണിഫോമ് ഭക്ഷണം പുസ്തകം എന്നിവയൊക്കെ സൗജന്യമായി നൽകണം